ഒരു യാത്ര പോണേലു മുന്നേ അല്ലെങ്കില് ട്രാവല് ചെയ്യേണ് മുന്നേ ഞാന് ഫസ്റ്റ് ചെയ്യാറുള്ള കാര്യങ്ങൾ എന്താണെന്നു വച്ചാൽ നമുക്ക് പോവേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെയെത്താം എന്ത് മീഡിയം ഓഫ് ട്രാന്സ്പോര്ട്ടേഷന് അല്ലെങ്കില് എന്ത് മാര്ഗത്തിലൂടെ അങ്ങോട്ടെത്താം കാര് വഴിയോ ബസ് വഴിയോ

അതു കഴിഞ്ഞാല് അടുത്ത കാര്യം എന്നു പറഞ്ഞാല് എത്ര എക്സ്പെന്സ് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എത്ര എക്സ്പെന്സ് ആവും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു മിനി ബഡ്ജറ്റ് ഇടാമെന്നുള്ളതാണ് എന്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഒരു കാര്യം അതുകഴിഞ്ഞ് പോവുന്നത് സമയമായിട്ട് നമ്മുടെ പാക്കിംഗ് എത്ര എത്ര ദിവസം അവിടെ കാണും എത്ര ദിവസത്തെക്കുള്ള സാധനങ്ങള് കൊണ്ടു പോവണമെന്നുള്ളത് പിന്നെ എത്ര ലഗ്ഗേജ് കൊണ്ടു പോവണം എന്നുള്ളതാണ് എന്റെ ഒരു തേര്ഡ് എന്റെ ലിസ്റ്റിലെ ഒരു തേര്ഡ് കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് പോലെത്തന്നെ നമ്മുടെ കൂടെ വേറെ പാസ്സെന്ജേഴ്സ് ഉണ്ടെങ്കില് അവരുടേയും കൂടി ലഗ്ഗേജിന്റെ കാര്യം കൂടി നോക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത് നമ്മുടെ ലഗ്ഗേജുകളൊന്ന് പക്കയായിട്ട് റെഡി ആവുമ്പോൾ തന്നെ നമ്മുടെ യാത്രകൾ എപ്പോഴും സുഖമാവും മോസ്റ്റിലി ഞാൻ എപ്പോഴും എന്റെ ലഗ്ഗേജുകൾ ഷോര്ട്ടാക്കി വയ്ക്കാനാണ് ശ്രമിക്കാറുള്ളത് കാരണം വലിയ വലിയ ലഗ്ഗേജസ്സ ആയാൽ നമ്മൾക്കിങ്ങനെ എല്ലാാം പോവുമ്പോൾ അത് ഈ ലഗ്ഗേജ് കൊണ്ടു നടക്കുന്നതൊരു വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് വരും സോ ലഗ്ഗേജ് ലൈറ്ററാക്കിയിട്ട് നമുക്ക് കൂടുതല് ട്രാവല് ചെയ്യാനുള്ളൊരു മൈന്ഡാണ് ഫസ്റ്റ് വയ്ക്കുക ഈ അതേ പോലെ തന്നെ ഇതു കഴിഞ്ഞു നമ്മൾ അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലം ലിസ്റ്റിലെ ഫോര്ത്ത് മോസ്റ്റ് ഒരു കാര്യമാണ് അതായതു എവിടെ നിൽക്കും എത്ര ദിവസത്തേക്ക് ദിവസത്തേക്ക് നിൽക്കും അവിടെ എത്ര എക്സ്പെന്സ് ആവുമെന്നുള്ളതാണ് ഞാന് ഫോര്ത്ത് നോക്കാറുള്ളത് ഈ പറഞ്ഞ പോലെ അത് മുന്കൂട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കില് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാവല്ലിംഗ് ടിക്കെട്സ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെത്തന്നെ അതും ബുക്ക് ചെയ്യാറുണ്ട് ഈ പറഞ്ഞപോലെ മുന്കൂട്ടി ബുക്ക് ചെയ്യേണ്ടത് എപ്പോഴും നേരത്തെ കൂട്ടി ചെയ്യാറാണ് പതിവ് അതേപോലെ തന്നെ എപ്പോഴും ട്രാവല്ലിങ്ങ് നമുക്ക് ഇന്ട്രെസ്റ്റിങ്ങ് ആക്കണമെങ്കിൽ ഈ ഈ പറഞ്ഞ കാര്യങ്ങള് മാത്രം പ്ലാന് ചെയ്ത് അവിടെ എത്തി ഇപ്പോൾ നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തിയതിന് ശേഷം പ്യുവറായിട്ട് ജസ്റ്റ് ഇറങ്ങി നടന്ന് കണ്ണില് കാണുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലോറ് ചെയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മൈന്ഡ് ആണ് എന്റെ അതായത് അവിടെ ചെന്നിട്ട് എന്തൊക്കെ പോയി കാണണം എന്നുള്ള പ്ലാന് ചെയ്യാണ്ട് റാണ്ടമായി ഇറങ്ങി വളരെ അവിടുത്തെ ഏറ്റവും ലോക്കൽ ആള്ക്കാരായിട്ട് നമ്മൾ ഇൻറ്ററാക്റ്റ് ചെയ്ത് ഏതാണ് നല്ല നല്ല സ്പോട്ട്സ്സെ എന്ന് അറിഞ്ഞ് അവിടെ പോയി അത് എക്സ്പ്ലോറ് ചെയ്യാനുള്ളതാണ് എന്റെ ഒരു ഐഡിയ അല്ലെങ്കില് എന്റെ ഒരു കണ്സെപ്റ്റ് ഞാന് ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് വഴി വഴി നമുക്ക് ഒന്നും കൂടി ആ സ്ഥലത്തെ കുറിച്ച് വളരെ കൂടുതല് നമുക്കത് അണ്ടര്സ്റ്റാന്ഡ് ചെയ്യാനും ആ സ്ഥലം ഒന്നു കൂടി കുറച്ച് അധികം നമുക്കതിന്റെ ബ്യൂട്ടി എക്സ്പ്ലോറ് ചെയ്യാന് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളൊരു ഒരു വിധം എല്ലാ ആള്ക്കാറും അങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മുടെ പോവുന്നതും നിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങള് പ്ലാന് ചെയ്യാം എന്നല്ലാണ്ട് അവിടെ ചെന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പ്ലാന് ചെയ്യുന്നതിനു പകരം ചുമ്മാ റാണ്ടമായി പോയി എല്ലാം ഒന്നു നമ്മൾക്ക് ഫസ്റ്റെ് എന്തു വരുന്നു അതു കണ്ട് അടുത്ത കണ്ട് അങ്ങനെ അങ്ങനെ പോവുന്നതാണ് രസം എന്നാണ് എനിക്ക് പേര്സണലി ഫീല് ചെയ്തിട്ടുള്ളത് പിന്നെ പ്ലാന് ചെയ്ത് പോകുന്നവരും ഉണ്ട് അതും അതും ഒരു നല്ലൊരു കാര്യമാണ് നമ്മുടെ ടൈം നല്ലോണം പ്രോപ്പറായി മാനേജ് ചെയ്യാന് പറ്റും നമ്മുടെ ഫണ്ട് പ്രോപ്പറായി മാനേജ് ചെയ്യാന് പറ്റും പക്ഷെ എനിക്ക് പേര്സണലി ഇഷ്ടം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ആള്ക്കാരായി ഇൻറ്ററാകറ്റ് ചെയ്ത് അവിടുത്തെ സ്പെഷ്യല് സ്പെഷ്യല് പ്ലേസസ്സുകള് പോയി അതേ പോലെ തന്നെ അവിടുത്തെ കള്ച്ചറും അവിടുത്തെ ഐഡിയോളജീസുമെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനാണ് എന്റെ പേര്സണൽ അല്ലെങ്കില് എനിക്ക് പേര്സണലി ഇഷ്ടമുള്ള കാര്യം